ചുവന്ന മുളകുപൊടി പൊടിക്കാനായി ഗ്രാമത്തിലെ സ്ത്രീകൾ ഇതുണ്ടാക്കുന്ന സ്ഥലത്ത് എല്ലാവരും നിശ്ചിതമായ സമയത്ത് സ്ത്രീകളെല്ലാം ഒത്തുകൂടുന്നു ഒത്തുകൂടി കഴിഞ്ഞ് ഈ ചുവന്ന മുളക് അവർ എല്ലാവരും ചേർന്ന് കഴുകി വാരിയെടുത്ത് തുറസ്സായ സ്ഥലത്ത് ഉണക്കാനിടുന്നു ഉണക്കാനിട്ട് ഉണങ്ങി കഴിയുമ്പോൾ വെയിൽ കൊണ്ട് അത് നന്നായി ഉണങ്ങി കഴിയുമ്പോൾ അതിനെ എല്ലാവരും കൂടി ചേർന്ന് ഇരുന്ന് അതിൻ്റെ ഞെട്ട് പിഴുത് കളഞ്ഞ് പിന്നീട് ഈ മുളക് ഉണങ്ങിയ മുളക് ഉരലിലും ഉലക്ക കൊണ്ടിടിച്ച് അവർ അത് പൊടിയാക്കുന്നു അപ്പോൾ ഒരു ഉരലിൽ തന്നെ രണ്ട് സ്ത്രീകൾ ഉലക്ക കൈമാറി ഇടിക്കുന്നു ഇതവരുടെ ആയാസം കുറയ്ക്കുന്നു പിന്നെ ഇതു പൊടിച്ച് അവര് മറ്റ് സ്ത്രീകൾ അത് അരിക്കുന്നു അരിച്ച് അതിൻ്റെ നല്ല പൊടിയാകുന്നതുവരെ അവരത് തിരിച്ച് വീണ്ടും ഇടിക്കുകയും അരിക്കുകയും ചെയ്ത് നല്ലപൊടിയായി കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിനെ ഉണങ്ങിയ വൃത്തിയുളള പാത്രങ്ങളിൽ അടച്ച് സംരക്ഷിക്കുന്നു